എനിക്ക് അറിയാവുന്ന ഭാഷ മറ്റു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തമിഴ് എനിക്ക് പറയാൻ പറയാൻ മാത്രമേ അറിയാവൂ എഴുതാനും വയ്ക്കാനും അറിയില്ല ഹിന്ദി എനിക്ക് എഴുതാനും വായിക്കാനും നന്നായിട്ട് അറിയാം ഇംഗ്ലീഷും അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് മലയാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മലയാളിയാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു മലയാള ഭാഷ എവിടെ ചെന്നാലും പറയുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു മലയാള ഭാഷ എല്ലാവർക്കും പെട്ടെന്ന് സ്വായത്തം ആകാൻ പറ്റുന്ന ഒരു ഭാഷയല്ല നമുക്ക് എന്താ പറയുക മറ്റു ഭാഷകൾ നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് അതിൻ്റെ അത് എങ്ങനെയാണ് അതിൻ്റെ അക്ഷരമാല പഠിച്ച് ചിഹ്നങ്ങൾ പഠിച്ച് മലയാളം നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ വായിച്ചാൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പറയാനും കേട്ട് കേട്ട് നമുക്ക് അത് എങ്ങനെയാണ് പറയാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കാനൊക്കെ പറ്റും പക്ഷെ മലയാളം നമുക്ക് അങ്ങനെ ഈസിലി നമുക്ക് സംസാരിക്കാനോ എഴുതാനോ വായ്ക്കനോ ഒന്നും പറ്റാത്ത ഒരു ഭാഷയാണ് മലയാളം അതായത് അത് വേറെ ഒരു സംസ്ഥാനത്ത് ഉള്ള ഒരാൾ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത് കേരളീയനും കേരളീയത് കേരളത്തിൽ ജനിച്ച് വളർന്നിട്ട് മലയാളം അറിയില്ലാത്ത എത്രയോ പേരുണ്ട് കാരണം അത്ര നമ്മൾ എന്നും വാ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ലാങ് നമ്മുടെ റ്റങ്സ് ട്വിസ്റ്റ് ട്വിസ്റ്റർ എന്നൊക്കെ പറയില്ലേ നമുക്ക് വഴങ്ങി കിട്ടും ഇത് നമുക്ക് കിട്ടില്ല വഴങ്ങി കിട്ടാൻ കുറച്ച് പാടാണ് മലയാള ഭാഷ അപ്പം മറ്റു ഭാഷകൾ വെച്ച് നോക്കുമ്പോൾ വേഗം എനിക്ക് പഠിക്കാൻ പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ വേഗം പഠിച്ചിട്ടുള്ള ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റി ഇംഗ്ലീഷ് അറിയാം എങ്കിലും എനിക്ക് ഹിന്ദി അറിയാവുന്ന അത്രയും ഇംഗ്ലീഷ് എനിക്ക് വേറെ ഒരാളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അതേപോലെ തന്നെ തമിഴ് തമിഴ് നമുക്ക് വേഗം പഠിക്കാൻ പറ്റും ഇനി എഴുതാനും വായിക്കാനും അറിയില്ല സംസാരിക്കാൻ മാത്രം ഉള്ളു കാരണം മൂവി കണ്ട് മൂവി കണ്ട് അത് ഒരു ഭാഷ സ്വായക്തമാക്കിയെന്നെ ഉള്ളു